ശരീരഭാരം കുറയ്ക്കാൻ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള കുറച്ചു നാട്ടുവൈദ്യങ്ങളുണ്ട് ഈ നാട്ടുവൈദ്യങ്ങളില് ഏറ്റവും കൂടുതല് കാര്യങ്ങളെന്നു പറയുന്നതു നാട്ടുവൈദ്യക്കാര് പറയുന്നതും കൂടുതലും നമ്മുടെ ശരീരത്തില് നമ്മള് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് നാട്ടുവൈദ്യത്തിൽ ഏറ്റവും കൂടുതൽ അവരും പറയുന്നത് വ്യായാമമാണ് ഏറ്റവും കൂടുതല് നല്ലത് എന്നാണ് അവര് പറയുന്നത് അതുപോലെ അവര് എന്നാ ഇതു കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആഹാര രീതികൾ നമ്മളോടു പറയുന്നുണ്ട് നാട്ടുവൈദ്യത്തില്ത്തന്നെ നമ്മളുടെ നാട്ടുവൈദ്യമാര് കുറച്ച് ആഹാര രീതികൾ നമുക്കിതിനു വേണ്ടിയിട്ടു പറയുന്നുണ്ട് അതു ചെയ്തുകഴിഞ്ഞാല് നമ്മുടെ ശരീരഭാരം കുറയുന്നതാണ് ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് അവര് കുറച്ചു ഭക്ഷണ പദാർഥങ്ങൾ നമ്മോട് പറയുന്നുണ്ട് അതു നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ആ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ കഴിയും എന്നവര് പറയുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കുന്നതിന്റെ ഏറ്റവും നാട്ടുവൈദ്യര് പറയുന്നതെന്നുവച്ചുകഴിഞ്ഞാല് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ആരും ആഹാരം കുറയ്ക്കേണ്ടതില്ല എന്നാണു പറയുന്നത് ആഹാരം കുറയ്ക്കേണ്ടതല്ല പക്ഷേ ഭക്ഷണ ക്രിമീകരണത്തില് കുറച്ചു മാറ്റങ്ങൾ വരുത്തണം എന്നാണ് അവര് പറയുന്നത് അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് അവര് കുറച്ചു രസായനങ്ങൾ രസായനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ നാട്ടു വൈദ്യന്മാരുടെ കയ്യില് കുറച്ചു പ്രത്യേക രസായനങ്ങളുണ്ട് രസായനങ്ങള് കഷായങ്ങളുണ്ട് അത് അവര് നമ്മോടു പ്രത്യേകം പറഞ്ഞുതരുന്നുണ്ട് ആ രസായനങ്ങൾ കുടിക്കുകയും രസായനങ്ങള് ഉപയോഗിക്കുകയും കഷായങ്ങൾ സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശരീരഭാരം കുറയ്ക്കാമെന്നവര് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഭക്ഷണക്രമീകരണങ്ങളും വ്യായാമങ്ങളും ചെയ്തുകഴിഞ്ഞാൽ നമുക്കു ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ നാട്ടുവൈദ്യന്മാർ ഉറപ്പു പറയുന്നുണ്ട് അതിനു വിശദമായിട്ടുള്ള ഉറപ്പുണ്ട് അതിനു തെളിവുകളുമുണ്ട് നമ്മുടെ നാട്ടുുവൈദ്യന്മാരെന്നു പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞാൽ അച്ചട്ടാണ് ആ രീതിയിലാണ് നമ്മുടെ നാട്ടുവൈദ്യന്മാര് ചെയ്യുന്നത് നാട്ടുവൈദ്യന്മാരില് അവർക്കു കുറച്ച് ഔഷധങ്ങളും മരുന്നുകളും കൂട്ടുകളുമുണ്ട് ആ കൂട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഗ്രാമത്തിലെ നാട്ടുവൈദ്യര് നമുക്കു ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ചെയ്തുതരുന്നത് അതുപോലെ ഭക്ഷണക്രമീകരണങ്ങളും വ്യായാമങ്ങളും അവര് തന്നെയാണു നിർദ്ദേശിക്കുന്നത് അവര് പറയുന്നതുപോലെ പഥ്യം ഉപയോഗിക്കുകയാണെങ്കിലതിൽ നമുക്കു ശരീരഭാരം കുറയ്ക്കാനാവുമെന്ന ഒരു ഉറപ്പു നൽകുകയും അതിനു തെളിവിനു നമ്മടെ നാട്ടിൽ തന്നെയുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ വൈദ്യമാര് പറയുന്ന അതേപോലെയുള്ള ഔഷധങ്ങളും മരുന്നുകളും കഷായങ്ങളും രാസായനങ്ങളും ഉപയോഗിക്കുകയും ഭക്ഷണക്രമീകരണത്തില് വ്യത്യാസം വരുത്തുകയും അതുപോലെ തന്നെ വ്യായാമങ്ങളും മറ്റു കാര്യങ്ങളും അവര് നിർദ്ദേശിക്കുന്ന രീതിയില് പഥ്യത്തോടെ ചെയ്യുകയാണെങ്കിൽ ശരീരഭാരം നമുക്ക് ഈസിയായിട്ടു കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അതിനു നമ്മുടെ നാട്ടില് തെളിവുകളുമുണ്ട് അതിനു നമ്മുടെ നാട്ടിലുള്ള വൈദ്യന്മാരെ നിങ്ങള്ക്കു വിശ്വസിക്കാം നിങ്ങള്ക്കാർക്കെങ്കിലും അങ്ങനെ ശരീരഭാരം കുറയ്ക്കണം എന്നു താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വൈദ്യന്മാരുടെ വിശദമായ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു തരാം അതനുസരിച്ചു നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടുകയും അവരുമായിട്ടു ബന്ധപ്പെട്ടതിനുശേഷം ശരീരഭാരം കുറയുന്നതിന് അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉത്തമമായി ബോധ്യപ്പെട്ടാല് മാത്രം നിങ്ങൾക്ക് അത് അവരുമായിട്ടു ബന്ധപ്പെട്ടിട്ടു ശരീരഭാരം കുറക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങള്ക്കു ചെയ്യാം